ഹലോ സുഹൈല ഞാന് യൂറോപ്പിലോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കൊരു ബാക്ക് പാക്കിംഗ് യാത്ര ഹ അതെ ഒറ്റയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗായിട്ടുള്ളൊരു പ്ലേസാണല്ലോ പക്ഷേ പ്രശ്നം എന്താണെന്നുവച്ചാല് എനിക്ക് പാസ്പോർട്ട് ഒന്നു പുതുക്കേണ്ടതുണ്ട് യാത്രയ്ക്കു മുന്നേ അപ്പോള് അതിൻ്റെ നടപടികളൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലൊരു അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യാന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് വ്യൂ പോയിന്റ്സൊക്കെയുള്ള സ്ഥലമാണല്ലോ അപ്പോള് ഒരുപാട് യൂറോപ്പില്തന്നെ ജർമ്മനിയിലേക്ക് ഒരുപാടു മറിഞ്ഞിരിക്കുന്ന തടാകങ്ങളിലിങ്ങനെ ബോട്ടുകളിൽ കൂടെ സഞ്ചരിക്കുന്നത് പിന്നെ ഫ്രാൻസിലേക്കു വിശാലമായിട്ടുള്ള മണൽകൂനകളുണ്ട് നോർവേയില് നോർവീജിയൻ കടൽ പിന്നെ സ്ലോവനിയയിലെ ലേക്ക് അങ്ങനെ ഒത്തിരി നമുക്ക് കാണാന് ബ്യൂട്ടിഫുളായിട്ടുള്ള സ്ഥലങ്ങള് അവിടെയുണ്ട് ഹാ ചെന്നുകഴിഞ്ഞാല് ഫസ്റ്റ് ഞാനൊരു ഹോട്ടലില് ബുക്ക് ബുക്കിങ് ചെയ്തിട്ടുണ്ട് അപ്പോള് അതിലോട്ട് അവിടെ അന്ന് സ്റ്റേ ചെയ്ത് ഫ്രഷായതിനുശേഷം ആ പതുക്കെ ജർമ്മനിയിലോട്ടു പോകാമെന്നാണു പ്ലാൻ ചെയ്യുന്നത് അപ്പോള് അവിടെയൊക്കെ പോയിട്ട് ഫസ്റ്റ് നമ്മൾക്കു കാണാനുള്ള കുറേ സീന് കുറച്ച് പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്തതിനുശേഷം നേരെ ഫ്രാൻസിലോട്ട് പോവാനാണ് വിചാരിക്കുന്നത് ഫ്രാൻസിലൊക്കെ പോയാലും ഒരുപാട് ഒരു സീനറീസൊക്കെ ഞങ്ങള്ക്കു കാണാനുണ്ടല്ലോ